ഞാൻ ആദ്യമായിട്ടാണ് ഒര് ഓൺലൈൻ വഴി ഒരു സാധനം ഓർഡറ് ചെയ്തത് അതൊരു ബെഡ്ഷീറ്റ് ആയിരുന്ന് പക്ഷെ കുറഞ്ഞൊരു ബെഡ്ഷീറ്റാണ് ഓർഡറ് ചെയ്തിരുന്നത് അത് വാങ്ങിച്ചത് ഉപയോഗിച്ചപ്പോൾ അത് നല്ല നിലവാരമുള്ള ഒരു ബെഡ്ഷീറ്റ് ആയിരുന്നു എല്ലാവരും പറഞ്ഞ് ഓൺലൈൻ വഴി ഇത് ബെഡ്ഷീറ്റ് എടുക്കുമ്പം അത് വളരെ നിലവാരം ഇല്ലാത്തതാണെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ എനിക്കത് കിട്ടിയപ്പോൾ നല്ല നിലവാരം ഉള്ളതായിരുന്നു ഞാൻ അത് രണ്ടു മൂന്നു പ്രാവശ്യം കഴുകി ഇപ്പഴും ഞാനത് ഉപയോഗിക്കുന്നുണ്ട് അതിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്